ആ ചേട്ടാ വരൂ നമസ്കാരം ഓക്കെ ഫർണിച്ചർ ഇപ്പോൾ എന്തൊക്കെ വേണ്ടി വരും അതിലേക്ക് ആ ആ ആ ഓക്കെ കുറഞ്ഞ മോഡല് ആറ് ചെയർ അല്ലെ ആ തേക്കിൻ്റ ഫ്രെയിമിന് ഗ്യാ ഗ്ലാസ് ഇട്ടിട്ട് ഉള്ളത് ഓക്കെ ഫുൾ മരത്തിൻ്റയാ കുഷ്യൻ വേണ്ടാത്ത ടൈപ്പ് അല്ലെ ആ പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ബഡ്ജറ്റ് എങ്ങനെ ആണ് നോക്കുന്നത് നല്ല മോഡല് നോക്കുമ്പോൾ അതായത് വില ബഡ്ജറ്റ് കാര്യങ്ങൾ എങ്ങനെ ആണ് നിങ്ങളുടെ ആ ഓക്കെ ആ ആ ആ അതെ അതെ ആ അലമാര അലമാര പുതിയ മോഡല് മറ്റെ റാക്ക് അടിക്കാൻ ആണോ അത് അവിടെ ഫിറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ആ അതോ മറ്റെ മൂവിംഗ് ടൈപ്പ് ആണോ ഉദ്ദേശിക്കുന്നത് ഓക്കെ ശരി ആ അപ്പോൾ അലമാര കട്ട് കട്ടില് വേണോ

ഓക്കെ മാസ്റ്റർ ബെഡ്റൂം ആണ് അല്ലെ അപ്പം അതിലേക്ക് വരുന്ന കട്ടിലും അതിന്റെ ആ ഓക്കെ അപ്പം നമ്മുടെ കൈയ്യിൽ ഉള്ള സെറ്റ് എന്ന് പറയുമ്പം എൽ ഷേപ്പ് സോഫ വരുന്നുണ്ട് അതില് ഫുള്ളി ഫുള്ളി കുഷ്യൻ കുഷ്യൻ ടൈപ്പ് ആണ് വരുന്നത് മരത്തിൻ്റെ ഫ്രെയിമ് അതായത് പുറത്ത് ഒന്നും കാണില്ല ഫുൾ ഫുൾ ആയിട്ട് നമ്മള് പുറത്ത് കാണുമ്പം ഫുള്ള് കുഷ്യൻ ടൈപ്പ് ആയിരിക്കും കവേർഡ് ആയിരിക്കും ഫുള്ള് ആയിട്ട് ഉള്ളത് ഫുള്ളി കവേർഡ് ഇത് ആണ് വരുന്നത് അതില് വന്നിട്ട് ഇപ്പം നമുക്ക് ഇരുപത്തിയേഴ് അഞ്ഞൂറ് വരുന്നുണ്ട് അതിൽ ഏത് കളറാണ് നോക്ക് കളർ അനുസരിച്ച് കുറച്ച് വ്യത്യാസം വരും ഇപ്പം ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂൺ ഉണ്ട് ഓക്കെ ആ ആ അത് ഒര് എണ്ണം എൽ ഷേപ്പ് എൽ മോഡല് വന്നിട്ട് പുതിയത് ആണ് അത് പുതിയ മോഡൽ ആണ് നമ്മുടെ അപ്പം ഇത് ഫസ്റ്റ് ഇതിൻ്റെ നിങ്ങൾക്ക് അതായത് നമ്മള് ഫസ്റ്റ് ആയിട്ട് ആ മോഡല് വർക്ക് ചെയ്ത് വെച്ച് ഇട്ടിട്ട് ഉള്ളു അപ്പം അതില് വരുന്നത് ഈ എൽ മോഡൽ സോഫ വരുന്നുണ്ട് പിന്നെ ചെറിയ ഒരു രണ്ട് ചെറിയ സിംഗിൾ പീസിൻ്റ രണ്ട് സോഫയും അതായത് കുഷ്യൻ ചെയറും വരും അതില് ഓക്കെ അത് ഇതിൻ്റ ഇത് ആയിട്ട് വരുന്നത് ആണ് ഈ മൂന്ന് സെറ്റ് ഈ മൂന്നിൻ്റെയും കൂടെ സെറ്റ് ആണ് വരുന്നത് നമ്മുടെ ഇടയില് അപ്പം അതിന് ഇരുപത്തിയേഴ് അഞ്ഞൂറ് വരുന്നുണ്ട് അല്ല ഇത് നമുക്ക് ആ എൽ ഷേപ്പില് വന്നിട്ട് തന്നെ ഒര് അഞ്ച് ആറ് ആൾക്ക് ഇരിക്കാൻ പറ്റും മറ്റേത് രണ്ട് സിംഗിൾ പീസ് വേറെ ആ കുറച്ച് വലിപ്പം ഉള്ള രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത് ആ പിന്നെ പകുതി ആയിട്ട് ഒര് അഞ്ഞൂറ് വരുന്നുണ്ട് അതില് പിന്നെ നിങ്ങള് ഗ്ലാസില് മറ്റേത് വരുന്നുണ്ട് തേക്കിൻ്റെതിൽ ഇല്ലെ ഗ്ലാസ് വരുന്നത് ഗ്ലാസ് വരുന്നത് ഇല്ലെ ആ ഓക്കെ അതിൽ ഇപ്പം നമുക്ക് സിക്സ് ആറ് ചെയർ അല്ലെ വരുന്നത് ആ ഓക്കെ അതിന് ഇപ്പം നമുക്ക് ഏകദേശം ഇപ്പം നോക്കുക എന്ന് പറയുമ്പം ഒരു നാലടി ആ ഏകദേശം അത് അത്ര റേറ്റ് വരുന്നില്ല കാരണം ഇത് ഫ്രെയിമ് ഗ്ലാസ് ഇട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പ്ലെയിന് ആ ഒര് ഏകദേശം ഒര് പതിനെട്ട് രൂപേൻ്റ അടുത്ത് വരും അത് പതിനെട്ട് പതിനെട്ട് അല്ല പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് വരുന്നത് കെട്ടോ ചെയർ അടക്കം ആണ് ഫുൾ അത് ഒര് സെറ്റ് ആണ് ഇപ്പം ആറ് ചെയറും ആ ആ ഇതും കൂടെ ഡൈനിംഗ് ടേബിളും കൂടെ അതില് ചെറിയ ഡിസൈനും കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അതിന് കോ കോസ്റ്റ് ഒന്നും എടുക്കില്ല ഡിസൈനും കാര്യങ്ങളും ചെയ്ത് തരാം ഡിസൈന് നമുക്ക് ഇതിൽ ഇല്ലാത്ത അത് ചെയ്യാം ചെയ്യാം നമുക്ക് ഡിസൈൻ കാണിച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ അതില് കയറ് വേറെ ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്ത് തരാം അതില് നമുക്ക് ഒര് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരില്ല ഈ പതിനാറ് അഞ്ഞൂറിൽ അത് നമുക്ക് ചെയ്യാം അലമാര ആണ് ആ റൗണ്ട് ആക്കാം കുഴപ്പം ഇല്ല അത് പ്രശ്നം ഇല്ല നിങ്ങള് പറയുന്ന പോലെ അങ്ങ് ചെയ്ത് തരാം നമ്മുടെ സെറ്റായാണ് നമ്മള് പറയുന്നത് ആ നമ്മള് ആ മോഡല് വരുന്ന റേഞ്ച് ആണ് പറഞ്ഞത് ആ പിന്നെ അലമാര അല്ലെ പറഞ്ഞത് അലമാര അല്ലെ അലമാര കപ്ബോർഡ് ആ നാല് കള്ളി അല്ലെ ഓക്കെ അല്ലെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഓക്കെ അത് നമുക്ക് ഇതില് ഇപ്പം ആ ആ അപ്പം നിങ്ങൾ അത് നമുക്ക് ഉള്ളില് പോയി നോക്കാം അതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി അപ്പം അതിൽ ഇതില് നല്ലത് നോക്കിയിട്ട് ചൂസ് ചെയ്യാം ഇത് അല്ല പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വേറെ ഐഡിയ പറഞ്ഞാൽ നമ്മൾ അത് വേറെ പണിത് തരാം എത്ര ദിവസം ഉണ്ട് നിങ്ങൾക്ക് സമയം ആ കുഴപ്പം ഇല്ല അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ട്ടപ്പെടുന്ന പറഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അതില് മൊത്തം അപ്പം ഇത് മാത്രം വെച്ചാൽ മതി അല്ലൊ ലോക്കും കാര്യങ്ങൾ ഒക്ക വെച്ചാൽ മതി അല്ലൊ ബാക്കി ഇത് കുഴപ്പം ഇല്ലല്ലൊ

പിന്നെ വേറെ എന്താ കട്ടില് വേണം അല്ലെ കട്ടില് മാസ്റ്ററിൻ്റെ ഇപ്പോൾ കിട്ടും അല്ലെ ഒന്ന് നമ്മുടെ കൈയ്യില് സ്റ്റോക്ക് ഉള്ളൂ അതിൻ്റ ഡിസൈൻ ഒന്ന് നോക്കൂ ഇഷ്ടം അ ഇഷ്ടപ്പെട്ടാൽ അത് എടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം അത് രണ്ട് ദിവസത്തിന് ഉള്ള വർക്ക് ചെയ്തിട്ട് നമ്മൾ എത്തിച്ച് തരാം ഓ എല്ലാം കൂടെ ഇപ്പോൾ ഒര് ഇപ്പം ഇരുപത്തേഴും പതിനെട്ടും മുപ്പത്തഞ്ചും അതിന് വന്നിട്ട് ഒര് പത്ത് പന്ത്രണ്ട് രൂപ വരും അലമാര അത് കഴിഞ്ഞ് നാപ്പത്തേഴ് ഇതിന് വന്നിട്ട് ഇത് ഒര് അറുപത് എഴുപതിൻറ്റുള്ളില് നമുക്ക് എഴുപതിൻ്റ അടുത്ത് വരുന്നുണ്ട് എമൗണ്ട് നമുക്ക് എന്തായാലും ഒര് അറുപത്തഞ്ച് ആ അറുപത്തി രണ്ട് അറുപത്തഞ്ച് നമുക്ക് റെഡി ആക്കാം കെട്ടോ ആ നമുക്ക് അത് ഡിസ്കൗണ്ട് മാക്സിമം ആ മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് എന്തായാലും ഒര് അറുപ അറുപത്തിരണ്ട് രൂപ അതിൻ്റ മുകളിലേക്ക് പോവില്ല ആ പിന്നെ ഓ എത്തിച്ച് തരാം അത് ഒന്നും പ്രശ്നം ഇല്ല ഡെലിവറി ഒക്കെ ഉണ്ട് അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞ് തന്നാൽ മതി

അപ്പം എന്നാൽ ഏ വേണ്ട ഇപ്പം വേണ്ട നിങ്ങൾ ഇപ്പം ഉള്ളിൽ പോയിട്ട് അത് ഒക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ നമ്മളുടെ ആൾക്കാര് ഉണ്ടാകും പണിക്കാര് ഉണ്ടാകും ഉള്ളില് പോയിട്ട് അവർക്ക് ഏതാ വേണ്ടുന്നത് ഇപ്പം കൊണ്ട് പോവാൻ പറ്റുന്നത് ആണെങ്കിൽ അത് ഇപ്പം തന്നെ പാക്ക് ചെയ്ത് റെഡി ആക്കാമല്ലോ ആ അല്ല ഒന്ന് നോക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മൊത്തം ഇവിടുന്ന് നോക്കാം എല്ലാ പീസും ഉണ്ട് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി